ആ നെക്സ്റ്റ് വീക്ക് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫ്ലോട്ട്സ് അതായത് റൂമ്സും കാര്യങ്ങളും അതുപോലെ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് സീ ഫുഡ്ഡൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് സോ അതിൻ്റെ എൻക്വയറിക്കു വേണ്ടി വിളിച്ചതായിരുന്നു സോ ഡീറ്റേയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ

ആ അതെ അതെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അബ്രോഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അവർക്ക് ഫുള്ള് കേരള ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്

ആ ഓക്കെ ഓക്കെ സൊ ഞങ്ങളൊരാറു പേരുണ്ടാവും

ആ ലക്ഷ്യുറി ആയിട്ടുള്ളത് തന്നെയാണ് വേണ്ടത്

ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മൾക്ക് എല്ലാ അഫോർഡബിൾ ആണ് ആ അഫോർഡബിൾ ആയിട്ടുള്ള ഓക്കെ ഓക്കെ അതുപോലെ തന്നെ

ആ ആ യെസ് ഓഫ് കോഴ്സ് ആ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനേയും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടിയൊരു അട്രാക്ടീവ് ആയിട്ട് ഫീല് ചെയ്യുമായിരുന്നു അതെ ഇപ്പോൾ മെയിനായിട്ട് ഉദേശം വച്ചിട്ടുണ്ടെങ്കിൽ ആ എൻ്റെ ഫ്രണ്ട്സ് വരുന്നത് മെയിനായിട്ടുള്ള ഉദേശം വച്ചിട്ടുണ്ടെങ്കിൽ സീ ഫുഡ്ഡ്സ് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോറ് ചെയ്യുക കാരണം കേരളത്തിനെപ്പറ്റി പറയുമ്പോൾ തന്നെ അവർക്ക് കേട്ടിട്ടുള്ള അതെ അതെ അതെ അതെ അതെ അപ്പം അങ്ങനെയൊരു ഫെസിലിറ്റിയും കൂടി നിങ്ങൾ ആ ആ നിങ്ങൾ ഫെസിലിറ്റി ആ ഒരു ഫെസിലിറ്റി കൂടി കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും കൂടി ഇതായിരിക്കും ആ അതെ ഫ്ലൈറ്റിലായിരിക്കും അല്ല ഫ്ലൈറ്റിലായിരിക്കും ആ ഞാൻ ഓക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആ ഗാതറിങ്ങ് ചെയ്തിട്ട് ഞങ്ങൾ ഡയറക്ട് ആയിട്ട് നിങ്ങളെ അടുത്തേക്ക് എത്തിയാൽ പോരേ ആ വണ്ടി ഇല്ലയില്ല ഇല്ല ഇല്ലിയില്ല വണ്ടിയുണ്ടാവും ഞങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ടാവും അതെ ആ ഇല്ലില്ലില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ആളെയും കൂടെ നമ്മുടെ കൂടെ കൂട്ടാം അതെ

ഇല്ലയില്ലില്ല

ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ